ഹലോ ആദം റസ്റ്റോററ്റല്ലേ ഞാൻ പ്രിയ മങ്ങാട്ടുകരയിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ സ്ഥിരമായി നിങ്ങളുടെ കടയിൽനിന്ന് ഓർഡർ എടുക്കാറുണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ ഫുഡ് വളരെയധികം ഇഷ്ടമാണ് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നന്നായിട്ടുണ്ട് അപ്പോൾ എനിക്കിനി എൻ്റെ ജോലിസംബന്ധമായിട്ട് എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി മാറി താമസിക്കേണ്ടതുണ്ട് അപ്പം ഈ അഡ്രസ്സ് ഇപ്പം തന്നിരിക്കുന്ന അഡ്രസ്സു മാറ്റി എൻ്റെ പുതിയ അഡ്രസ്സ് തരുന്നതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഈ കട കടയിലെ ഫുഡ് നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് തന്നെ തുടരാമെന്ന് വിചാരിച്ചത് എനിക്ക് ഈ ആഡ്രസ്സിലേക്ക് ഫുഡ് കൊണ്ട് തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്ന് വി വിചാരിക്കുന്നു ഓക്കെ താങ്ക്യൂ